ഹലോ ആ ഹ ആ ഗൂഡ് ഈവിനിങ് ഞാൻ ഫേഷ്യലിന്റെ റേയ്റ്റ് ചോദിക്കാൻ വിളിച്ചതാണ് അവടെ എത്ര തരം ടൈപ്പ് ഫേഷ്യൽ ഉണ്ട് ഹൈഡ്രാഫേഷ്യൽ ഉണ്ടോ ഹൈഡ്രാഫേഷ്യൽ ഉണ്ടോ ഉള്ളുമല്ലെ അതിലെ റേയ്റ്റ് എങ്ങനെയാണ് വരുന്നത് അഞ്ഞൂറിന് മുകളിലോട്ട് അല്ലെ എനിക്ക് ഈ വരുന്ന സാറ്റർഡെ ഒരു ഫങ്ങ്ഷൻ ഉണ്ട് അപ്പം ഞാൻ എന്ന് വന്നു ചെയ്യണം കാരണം അതിന്റെ ഗ്ലോ എത്ര നേരം എത്ര ദിവസം നിൽക്കും എന്ന് എനിക്ക് അറിയണമായിരുന്നു കാരണം ഫങ്ഷന് മുന്നേ ഗ്ളോ ആയിട്ട് അ ഓക്കെ അപ്പം അതിന് മുന്നെ വന്ന് ചെയ്താൽ മതി അല്ലെ ഓക്കെ ഓക്കെ ഒ ഓക്കെ ഓക്കെ അതേ ഏതായിരിക്കും നല്ലത് ഗോൾഡൻ ആയിരിക്കുമോ അതോ പേൾ ആയിരിക്കുമോ ഓക്കെ ഓക്കെ ഹെയറിനോ ഞാൻ ഒരു വെനസ്ഡെ വരാനാണ് അപ്പം എനിക്ക് ഫേഷ്യലും ഹെയറിന് സ്പായും കൂടെ ചെയ്യാനായിരിക്കും അത് രണ്ടും അവിടെ അവൈലബിൾ ആയിരിക്കുമോ ആ ടൈമിൽ ഒകെ ഓക്കെ ഓക്കെ അപ്പം രണ്ടും കൂടെ എമൗണ്ട് എത്രയാവും ഓകെ ഓക്കെ ഓക്കെ അപ്പം ഞാൻ ഫ്രൈഡെ രാവിലെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം എനിക്ക് കൃത്യ എമൗണ്ടും നിങ്ങളുടെ ലൊക്കേഷൻ ഞാൻ പറയുന്ന നമ്പറിലേക്ക് ഒന്ന് ഇട്ട് തന്നാൽ മതി ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം ഓക്കെ താങ്ക് യു